ഹലോ ഞാൻ നേരത്തെ വിളിച്ചിരുന്ന ആളാണ് പിന്നെ എനിക്ക് കാറ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നല്ലോ മൂന്നാർ മൂന്നാറിലേക്ക് പോവാനാണ് പക്ഷെ വീട്ടിൽ വേറെ വേറെ പരിപാടി അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് കാറ് ഒഴിവാക്കണം യാത്ര പോകേണ്ടാ എന്നാണ് തീരുമാനിച്ചത് ഞാൻ കുറച്ച് കുറച്ച് പൈസ തന്നിരുന്നു അഡ്വാൻസ് തന്നിരുന്നു മൂവായിരം രൂപ അപ്പോൾ ആ മൂവായിരം എനിക്ക് തിരിച്ച് നൽകണം മൂവായിരം രൂപ ആയത് കൊണ്ട് വലിയ തുകയാണല്ലോ അത് പെട്ടെന്നൊന്ന് തിരിച്ച് തരണം